ആ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ഉത്സവങ്ങളും ഇപ്പോൾ ആരാധനയാലയങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളമെന്ന് പറഞ്ഞാൽ ഒരു മത മതസൗഹാർദ്ദ നാടാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരം മതങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഹിന്ദുവുണ്ട് മുസ്ലീമുണ്ട് ക്രിസ്ത്യനുണ്ട് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള അതായത് ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മുസ്ലീംസിന് ആണെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതായിട്ടുള്ള ഉത്സവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈദുൽ ഫിത്തറാണ് ഈദുൽ ഫിത്തർ വലിയ പെരുന്നാളുണ്ട് ചെറിയ പെരുന്നാളുണ്ട് അപ്പോൾ അങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെയാണെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ട് ഉള്ളത് ക്രിസ്തുമസും പിന്നെ ഈസ്റ്റർ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പോൾ അങ്ങനെ പലരീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്ക ഓരോ മതസൗഹാർദ്ദത്തില് ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ സാംസ്കാരിക പാരമ്പര്യ പരിപാടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ നബിദിനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലീംസിൻ്റെ ഓരോ പരിപാടികളൊക്കെയാണ് പിന്നെ നമുക്ക് ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓണമുണ്ട് ഓണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഓണമാഘോഷിക്കുന്നുണ്ട് ഓണം ഫെസ്റ്റിവൽ പിന്നെ ശിവരാത്രിയുണ്ട് പിന്നെ ദീപാവലി അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ കേരളത്തിലും ജില്ലയിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്